എൻ്റെ നാട്ടിലെ പ്രാദേശിക ഭാഷയും ഗ്രാമീണ ഭാഷയും മലയാളം തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല ഓരോ സ്ഥലത്തും പല പല സ്ലാങ്ങുകളാണ് എന്നുള്ളത് അപേക്ഷിച്ചാൽ വേറൊരു വ്യത്യാസം ഒന്നുമില്ല മലയാളം തന്നെയായിരിക്കും എല്ലായിടത്തും പറയുന്നത് പിന്നെ അവിടെ സ്ലാങ്ങുകളിൽ വ്യത്യാസം വരും പിന്നെ ഈ ഓരോ കർണാടക തമിഴ്നാട് ബോർഡറിൽ ബോർഡറിനടുത്ത് ജീവിക്കുന്ന ആൾക്കാർ തമിഴ് കലർന്നിട്ടുള്ള മലയാളം ആയിരിക്കും സംസാരിക്കുന്നത് അത്പോലെ കർണാടക ബോർഡറിലുള്ളവർ കന്നഡ കലർന്നിട്ടുള്ള മലയാളം ആയിരിക്കും സംസാരിക്കുന്നത് പിന്നെ ഈ തുളു അങ്ങനത്തെ ഒക്കെ ഓരോ ലാംഗ്വേജ് സംസാരിക്കുന്നവർ ഉണ്ട് അപ്പോൾ മലയാളോം പിന്നെ കൊങ്ങിണി അങ്ങനത്തെ ഭാഷകൾ ഒക്കെ മലയാളവും ഇതും ഇടകലർന്ന് സംസാരിക്കുന്നവർ ഉണ്ട് പിന്നെ അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഒക്കെയുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ കേരളത്തിൻ്റെ പ്രത്യേകത എന്നു പറയുമ്പോൾ ഓരോ ജില്ലകളിലും ഓരോ സ്ലാങ്ങുകളായിരിക്കും ഇപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ലാങ്ങായിരിക്കും കൊല്ലം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ലാങ്ങായിരിക്കും പിന്നെ കോട്ടയം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ലാങ്ങായിരിക്കും ഇടുക്കി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ലാങ്ങായിരിക്കും എറണാകുളം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ലാങ്ങായിരിക്കും കോഴിക്കോട് എടുത്താൽ മറ്റൊരു സ്ലാങ്ങായിരിക്കും അതുപോലെ കാസർഗോഡ് എടുത്താൽ മറ്റൊരു സ്ലാങ്ങായിരിക്കും അതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലാതെ വലിയ സ്ലാങ്ങുകളിലുള്ള വ്യത്യാസം അല്ലാതെ ഭാഷയിൽ വ്യത്യാസം ഇല്ല എല്ലാവരും മലയാളം തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ കന്നട അല്ലെങ്കിൽ തുളു അല്ലെങ്കിൽ കൊങ്ങിണി അങ്ങനുള്ള മറ്റു ഭാഷ കലർത്തി സംസാരിക്കുന്നവർ ഉണ്ട് എന്നാലും അവരുടെ മലയാളം മലയാളം തന്നെ ആയിട്ടവിടെ തന്നെ നിൽക്കും ഇതിൻ്റെ കൂടെ മിക്സായി മറ്റു ഭാഷകൾ വരുമെന്നേ ഉള്ളൂ അല്ലാതെ പിന്നെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ ഗ്രാമീണ ഭാഷ അല്ലെങ്കിൽ മറ്റു ഭാഷ എന്നൊന്നൂല്ല പിന്നേ ഈ വനത്തിൽ ഒക്കെ ജീവിക്കുന്നവർ മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് എനിക്ക് വലിയ രീതിക്ക് അറിയത്തില്ല